ഹാലോ ഹാലോ ആ കോഴിക്കോട് പോലീസ് സ്റ്റേഷനായിരുന്നു ആരായിരുന്നു

ബാഗ് മിസ്സിംഗ് ആണല്ലേ അതായത് കാപ്പാട് വെച്ചിട്ടാണല്ലേ

എല്ലാ സാധനവും ഉണ്ടായിരുന്നല്ലേ ഓക്കേ ഓക്കേ എന്നിട്ട് ആരെങ്കിലും അടുത്തെങ്ങാനും വന്നിരിക്കോ അങ്ങനെത്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ഫാമിലിയായിട്ട് വന്നേതാണല്ലേ അവിടെ അടുത്തെവിടെയെങ്കിലും ഒക്കെ നോക്കിയായിരുന്നോ നിങ്ങളപ്പോൾ വേറെയെവിടെങ്കിലും വണ്ടിയിലും അങ്ങനെന്തേലും വെച്ചിട്ടുണ്ടായിരുന്നോ

മിസ്സ് മിസ്സായിപ്പോയല്ലേ ഓക്കേ അപ്പോൾ അടുത്താരും വന്നിട്ടുമില്ല നിങ്ങളവിടെ വെച്ചേക്കുവായിരുന്നു ആ ഓക്കേ ഓക്കേ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ കാരണം ഒരു ഇത്രേം ക്രൗഡ് ഉള്ളൊരു സ്ഥലമല്ലേ അപ്പോൾ ആരാ എടുക്കുന്നതെന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇവിടെ ആണെങ്കിൽ സീ സി ടീ വി കാര്യങ്ങളൊന്നുമില്ല ഒന്ന് അപ്പോൾ ഏതെങ്കിലും ആൾകാരാരെങ്കിലും വരുന്നതായിട്ട് എന്തെങ്കിലും സംശയം അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ ആ ഓക്കേ ഓക്കേ എന്തായാലും നിങ്ങളുടെ പേരും അഡ്രസ്സും ഒന്ന് പറഞ്ഞേക്ക് ശംമീര് ഹാ ഓക്കേ അഡ്രസ്സ് ആ ആ മുണ്ടക്കൽ പീ ഒ

ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ഓക്കേ ഞാൻ എന്തായാലും ഞാൻ നാളെ എന്തായാലും വന്നിട്ടൊന്ന് റിട്ടൺ കമ്പ്ലണ്ടെന്തെലും തന്നേക്കൂ ഞങ്ങളെന്തായാലും അന്വേഷിക്കുന്നുണ്ട് ഓക്കേ ഓക്കേ നോക്കാം നിങ്ങളെന്തായലും ബാങ്കിലൊന്ന് ചെന്നിട്ട് ആ എ ടി എമോന്ന് ബ്ലോക്കാക്കാനെന്തായാലൊന്ന് പറഞ്ഞേക്ക് കേട്ടോ എന്തായാലും ഒരു റിട്ടൺ കംപ്ലൈന്റ് എന്തായാലും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പരമാവധി നമ്മൾ ശ്രമിക്കും ഒക്കെ ഒക്കെ